എന്റെ അമ്മയില് നിന്നാണ് ചെടികളെ നന്നായി നോക്കാനുള്ള ഉപദേശം നേടുന്നത് കാരണം അമ്മെ അമ്മയുടെ അടുത്ത് ഇഷ്ടം പോലെ ചെടികളും ഒരു ചെറിയ ഒരു തോട്ടം തന്നെയുണ്ട് പല പല വെറൈറ്റി ചെടികൾ ഈ പുറത്തുള്ള ചെടികള് പോലെ തന്നെ ഇന്ഡോര് ചെടികളും കുടൂതലായിട്ട് ഉണ്ട് ഇന്ഡോര് ചെറ് ചെടികളില് നമ്മൾ ചെറുതായി ഒന്ന് വെള്ളം ചെറുതായി ഒന്ന് നനച്ചു നനച്ചു കൊടുത്താൽ മതി പക്ഷേ പുറത്തുള്ള ചെടികളെ നമ്മൾ അധികമായി പരിരക്ഷിക്കണം എങ്കില് മാത്രമേ അത് നല്ല ഫലം തരികയുള്ളൂ അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ചെടികള്ക്ക് പ്രത്യേക വള വളങ്ങളും പിന്നെ രാവിലെയും വൈകീട്ടും വെള്ളം ഒഴിക്കുന്നു അതിലെ ചെടിയെ വെട്ടി നിര്ത്തുന്നു എന്നുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം അമ്മ എന്നെ വളരെ വിശദമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിനാല് ഞാന് ചെടികളെ വളരെ അധികമായി സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ചെടികളുടെ സംരക്ഷണയില് സംരക്ഷണയില് സംരക്ഷണയിലാണ് അതിന്റെ ഫലം നമ്മള് കാണുന്നത് കാണാന് കാണാന് സാധിക്കുന്നത്